ചിത്രം വരച്ച് തുടങ്ങുന്നവർക്കും തങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിഹിക്കുന്നവർക്കും എനിക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ ചിത്രരചന ഒരു ദൈവാനുഗ്രഹമാണ് ചിത്രരചന എന്ന് പറയുന്നത് ദൈവം നമുക്ക് അറിഞ്ഞ് നൽകുന്ന ഒരു കഴിവാണ് ചിലർക്കത് ജനിച്ചപ്പം തൊട്ടന്നെ ആ ഒരു കഴിവുണ്ടാവും പകരം ചിലർക്ക് ജനിച്ച് കഴിഞ്ഞ് നമ്മൾ നിത്യമായി ഒള്ള പരിശ്രമത്തിക്കൂടെ ആ ഒരു കഴിവ് കിട്ടണോരുവുണ്ട് ചിത്രരചനയ്ക്ക് ഏറ്റും ഇമ്പോട്ടൻടായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പരിശീലനവും അതുപോലെ തന്നെ നല്ല ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിക്കുക എന്നുള്ളതുവാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചിത്രരചന ചിലർക്ക് ഭയങ്കര എളുപ്പമായി ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായി തോന്നിയേക്കാം പക്ഷേ ചിത്ര രചന എത്രമേൽ എത്രതന്നെ വളരെ എളുപ്പമാണ് ചിത്രരചന വളരെ എളുപ്പമാണ് ചിത്ര വരയ്ക്കാനെന്ന് പറയും എന്നുണ്ടെന്ന് കൂടിങ്ങിലും ചിത്ര രചന ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് ഒരു വ്യക്തിക്ക് എല്ലാ വ്യക്തിക്കും ഒന്നും ഒരു ചിത്രം വരയ്ക്കാൻ പറ്റീന്ന് വരുന്നില്ല എല്ലാർക്കും വരയ്ക്കാൻ പറ്റുവെങ്കിലും അതേ പേഫക്ഷനിൽ അതേ ഭംഗിയിൽ അതേ രസത്തിൽ ഒരാ എല്ലാവർക്കും ഒരേ പോലെ ചിത്രം വരയ്ക്കാൻ പറ്റീന്ന് വരില്ല ആ ഒരു ഭംഗിയിൽ അല്ലെങ്കിൽ ആ ഒരു രസത്തിൽ നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കണെങ്കിൽ നമ്മൾ നല്ല നല്ല ഗുരുക്കൾടെ വലിയ ഗുരുക്കൾടെ അട്ത്ത് നിന്ന് പഠിച്ച് നിത്യമായി അത് പരിശീലിച്ച് വരയ്ക്കുമ്പോഴാണ് ഒരു ചിത്രത്തിൽ അതിൻ്റെ ഭംഗി അല്ലെങ്കിൽ അതിൻ്റർത്ഥം കിട്ടുന്നത് എല്ലാ ചിത്രത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് അതിന് ആ ഒരു ചിത്രത്തിന് അർഥം കൊടുക്കുന്നത് ആ വരയ്ക്കുന്ന വ്യക്തിയാണ് അത്കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു ചിത്രത്തിന് അതിൻറ്റേതായ അർത്ഥം കൊടുക്കാൻ സാധിക്കണം എന്നൊണ്ടെങ്കിൽ നല്ല ഗുരുതന്നെ വേണം